ലോകത്തിലെവിടെയിരുന്നാലും ഒരു പ്രായത്തില് കുട്ടികൾക്ക് ഏറ്റവും കൂടുതല് കൗതുക കരമായ ഒരു ഹോബിയായിരുന്നു ശേഖരണം അത് എന്ത് തന്നെ ആയിക്കോട്ടെ സ്റ്റാമ്പ് ആയിക്കോട്ടെ നാണയമായിക്കോട്ടെ അല്ലെങ്കില് പാറക്കള പാറക്കഷ്ണങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ രൂപയുടെ തന്നെ പല തരത്തിലുള്ള നോട്ടുകളായിക്കോട്ടെ എല്ലാവർക്കും ഇത് ഭാവിയിലേക്കൊരു പ്രചോദനവും ഭാവിയിലേക്ക് നമുക്കത് പണ്ട് കാലത്തെ കാര്യങ്ങൾ അയവിറക്കാൻ ഒര് ഓർമ്മകളയവെറക്കാനുള്ള ഒരു പ്രചോദനമായിട്ടും നിലക്കൊള്ളുന്നുണ്ട് ഏറ്റവും നല്ലൊരു ഹോബിയായിരുന്നു ഈ ശേഖരണം ഞാൻ തന്നെ ആണെങ്കില് പണ്ട് എൻ്റെ ഒരു നാലില് അഞ്ചിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റാമ്പുകള് ശേഖരിച്ചിരുന്നു ഈ രൊ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ഒക്കെ ഒരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്ത് അതൊക്കെ എൻ്റെ അടുത്ത് തോനെ ഉണ്ടായിരുന്നു പിന്നേ പൈസകളാണങ്കില് ഇരുപത്തഞ്ച് പൈസ പത്ത് പൈസ അഞ്ച് പൈസ അങ്ങനെ കുറെ എൻ്റെടുത്തുണ്ടായിരുന്നു പാറകള് ഞാൻ അങ്ങനെ ശേഖരിക്കാറില്ല പിന്നെ മക്ക്യാട് മക്ക്യാട്ന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഒരു കോഴിക്കോട് ഉള്ളിലേയ്ക്ക് ബാലശ്ശേരി അപ്പുറം അപ്പം ആ സ്ഥലത്തുനിന്ന് ഞാന് പാറകളൊക്കെ ശേഖരിക്കുവായിരുന്നു ചെറിയ ഉണ്ട ഉണ്ട പാറകള് ഈ വെള്ളത്തിലൂടെ ഒഴുകീട്ട് അതിന് രൂപാന്തരം വന്ന സെസ്സ് പാറകള് ഞാൻ ശേഖരിയ്ക്കുവായിരുന്നു